അതെ ഇത് ഗ്രീൻ ഹിൽസ് പബ്ലിക്ക് സ്ക്കൂൾ ആണ് താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് അ അ അ എന്താണ് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ

ആണോ എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് മീനങ്ങാടി ആണ് എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടോ എൽ കെ ജി യിലേക്കാണോ എൽ കെ ജി ചേർക്കണോ പിന്നെ ഏതു കുട്ടിക്കാണ് രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ക്ലാസുകൾ ആരംഭിക്കും അപ്പോൾ ഏകദേശം നമ്മുടെ അഡ്മിഷൻ ഫിൽ ആയികൊണ്ടിരിക്കാണ് എത്രയും പെട്ടന്ന് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഡൊണേഷൻ വരുന്നത് ഇരുപത്തിയയ്യായിരം എൽ കെ ജി കുട്ടിക്ക് പിന്നെ ഒരു വർഷത്തേക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് വരും ഒരു വർഷത്തേക്ക് അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടക്കുക ശേഷം ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി പതിനായിരം രൂപ അടക്കാം അങ്ങനെ ആണ് ഞങ്ങൾ അതിൻ്റെ ഫീസ് സ്ട്രെക്ചർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കുട്ടിക്ക് നമ്മൾ ഓൾ വയനാട് എല്ലാ ഭാഗത്ത് നിന്നും നമ്മൾ വണ്ടി വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുട്ടിക്ക് ആയിരം രൂപ വെച്ചാണ് നമുക്ക് മാസം അതിന് വരുന്നത് അപ്പോൾ കൃത്യ സമയത്ത് നമുക്ക് വണ്ടി വണ്ടികൾ വരും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്നു അവരെ ആ കൃത്യ സ്ഥലത്ത് ആക്കി കൊടുക്കും അപ്പോൾ നമുക്ക് നാല് ഡിവിഷൻ ആണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ഒരു ക്ലാസ്സില് മൂന്ന് മുപ്പത് പിള്ളേരാണ് ഉണ്ടാവുക അപ്പം അതിന് അനുസരിച്ച് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടന്ന് വന്ന് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ ഇവിടെ സീറ്റ് കിട്ടാൻ സാധ്യത ഇല്ല അപ്പോൾ അതികം താമസിയാതെ തന്നെ എൽ കെ ജി കുട്ടിനെ കൊണ്ട് ചേർത്തണം അതുപോലെ തന്നെ നമുക്ക് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്കാണെങ്കില് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ ഒരു എക്സാം നടത്തും അതെ എക്സാം നടത്തി അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇതുപോലെ തന്നെ ഡോണേഷൻ ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കേണ്ടിവരും അതുപോലെത്തന്നെ രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു വർഷത്തേക്ക് ഇരുപത്തി നാലായിരം രൂപ ആണ് ഫീസ് അ അതുപോലെ തന്നെ ഈ സെയിം റൂട്ടിൽ ആയതുകൊണ്ട് ആ ബസില് ഇവർക്ക് യാത്ര ചെയ്യാം ഒരു കുട്ടിക്ക് ആയിരം രൂപ തന്നെ ആണ് ബസ് ചാർജ് ആയിട്ട് നമ്മൾ മന്ത്ലി വാങ്ങുന്നത് ഇതിനെല്ലാം പുറമേ നമുക്ക് ആനുവൽ ഫീസ് ഉണ്ടാവും ആനുവൽ ഡേ ടെ ഫീസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആർട്സും ആയി ബന്ധപ്പെട്ട് വരുന്ന സമയങ്ങളില് നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രിബ്യുഷൻ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ വാങ്ങുന്ന ഈ പറയുന്ന പൈസ ഒന്ന് ഡൊണേഷനും മറ്റേത് ഫീസും ആണ് അതിൻ്റെ പുറമേ യൂണിഫോം അതുപോലെത്തന്നെ ബുക്കുകള് അങ്ങനെ വരുന്ന ചിലവുകളും കൂടി ഉണ്ടാവും ഇനി എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് അവർക്ക് ഡാൻസ് പഠിക്കണോ അല്ലെങ്കില് മറ്റെന്തെങ്കിലും സ്പോർട്സും ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ അവരുടെ ആ ഒരു പിന്നെ അവരുടെ ടേസ്റ്റ് അവരുടെ ഇഷ്ട പ്രകാരം വിവിധ പരിപാടികളിൽ അവർക്ക് ജോയിൻ ചെയ്ത് അവർക്ക് അതിനകത്ത് പ്രാക്റ്റീസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു ഫീസ് അതാത് കാര്യങ്ങൾക്ക് ഉണ്ടാവും കാരാട്ട ഡാൻസിങ് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്ക് അതുപോലെ തന്നെ എന്ത് പരിപാടികൾ ആണെങ്കിലും അവർക്ക് ചേർന്ന് ഈ പഠനത്തിൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റുന്നതാണ് എത്രയും പെട്ടന്ന് നിങ്ങൾ വന്ന് എൽ കെ ജി കുട്ടിക്ക് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയുടെ പിന്നെ എൻട്രൻസ് എക്സാമും എഴുതാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക